ആ ആ അതേ ആ തക്കാളിക്ക് എല്ലാം വില ഇത്ര ഉണ്ട് ഇപ്പം കിലോന് നാൽപത് റുപ്യല്ലം ഉണ്ട് തക്കാളി

ഫ്രഷ് സാധനം കിട്ടും പക്ഷേ കുറച്ച് റേറ്റ് കൂടിയിട്ട് തരും പിന്നാ പൈസ അല്ലാതെ എങ്ങനെയാണ് തരുന്നത് ഒന്നിച്ച് തരുന്നോ അല്ല കുറച്ച് കുറച്ചായിട്ട് തരുന്നോ എമൗണ്ട് കുറച്ച് എഡ്ജസ്റ്റ് ആക്കിയിട്ട് പിന്നെ കുറച്ചിട്ട് പറഞ്ഞിട്ടൊക്കെ പറയാം അത് വീട്ടിൽ കൊണ്ട് തരണോ അല്ല നമ്മൾ ഇവിടെ തന്നെ ബെരുആ ആ അ ആ ആ ഗൂഗിൾ പേയോ ആ ആ ഓക്കെ

ആ എല്ലാം കിട്ടും ആ അതെല്ലാം എത്തിച്ചേരാം നമ്മൾ സമയത്ത് ആ അതെ ആ ആ അതെല്ലാം ശരിയാക്കി തരാം നല്ല സാധനം തന്നെ പച്ചക്കറി വിഷ വിത്തില്ലാത്ത സാധനം എല്ലാം ആ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന പച്ചക്കറി ആ ആ ആയി ആയി ആ ശരി ശരി ശരി ആ പൈസയെല്ലാം കുറച്ചിട്ട് തരാം ആ ആ ഗൂഗിൾ പേ ആക്കുന്നത് ഗൂഗിൾ പേ മറ്റിച്ചായെങ്കില് ക്യാഷ് എങ്കിൽ ക്യാഷ്

ആ ശരി ശരി ആ ആ ആയി ആയി ആയി ആ ആയി ഉം ആ അതെല്ലാം എത്തിച്ചേക്കാം സമയാവുമ്പം ആ ശരി ആയി നമ്മൾ ഇവിടെ കാസർഗോഡ് പാറക്കട്ട നിങ്ങൾ ഈട്ന്ന് ഏട്ന്ന് ആ ആ അപ്പം അടുത്ത് തന്നെ ആയില്ലേ വരാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ വരും ആ

വേണമെങ്കിൽ എത്തിച്ചേരാം ആ സമയമുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ആ ആയ് ആയ് ആ ആ ആ പച്ചക്കറിയെല്ലാം ഉണ്ടാക്കുന്നുണ്ട് പച്ചക്കറിയെല്ലാം ഉണ്ട് വെണ്ടക്ക പയർ എല്ലാം ഉണ്ട് ചീര അങ്ങനെ എല്ലാം ഉണ്ട് അല്ല ഫങ്ങ്ഷനും വേണ്ടുന്നതെല്ലാം അതു വേണ്ടുന്നതെല്ലാം എത്തിച്ചേരാം ആ ശരി ആ ശരി